ആ അതെയല്ലൊ പറയൂ മാഡം ആ പുതിയ അക്കൌണ്ട് തുടങ്ങാനായിട്ട് മാഡം ഒരു ആധാർ കാർഡ് നിങ്ങളുടെ ആധാർ കാർഡ് എടുക്കുക അതുപോലെ തന്നെ നാല് ഫോട്ടോ വേണം പാൻ കാർഡ് വേണം ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പുതിയ അക്കൌണ്ട് തുടങ്ങി കൊടുക്കുന്നതാണ് മാഡം ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ചെക്ക് ബുക്ക് കൊണ്ടുവരണം അപ്പോൾ ലോൺ സെറ്റ് ആക്കിത്തരും അതുപോലെ തന്നെ അക്കൌണ്ട് എടുക്കുമ്പോൾ സീറോ ബാലൻസ് ആയിട്ട് നമ്മൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു വൺ തൌസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പിസ് അക്കൌണ്ടിലേക്ക് ഇടണം അപ്പോൾ അതും കൂടി കൊണ്ടുവരണം ആ എടുക്കണം എടുക്കണം മാഡം ഏയ് നിങ്ങൾക്ക് ഇപ്പോൾ എ ടി എം എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ബേങ്കിൽ നിന്ന് തന്നെ ഒരു ഫോം തരും മാഡം അപ്പോൾ അത് മേടിക്കാനായിട്ട് ഒരു പത്തു രൂപ തരണം അത് കഴിഞ്ഞിട്ട് ഫോം നിങ്ങൾ ഇവിടെ നിന്ന് ഫിൽ ചെയ്തിട്ട് ബേങ്കിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എ ടി എമ്മിൻ്റെ കാര്യം ബേങ്ക് തന്നെ സെറ്റ് ആക്കി തരും മാഡം ആ അപ്പോൾ ലോൺ എടുക്കാനാണോ ഇല്ല മാഡം നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ ചെക്ക് ബുക്ക് വേണം എ ടിഎം എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഫോം ഫിൽ ചെയ്തിട്ട് സെറ്റ് ആക്കണം മാഡം എന്നത്തേക്ക് ആണ് മാഡത്തിന് അക്കൌണ്ട് എടുക്കാൻ വരുന്നത് സോറി മാഡം നാളെ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ ബാങ്ക് ഓപ്പൺ ചെയുന്നതല്ല പിന്നെ സൺഡേ ആയതുകൊണ്ട് അടുത്ത ദിവസവും ഉണ്ടാവില്ല ഇനി ഇപ്പോൾ മൺഡേ ആയിരിക്കും ഓപ്പെനിങ് ഉള്ളത് അപ്പോൾ മൺഡേ വരുകയാണെന്ന് ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ നിന്ന് മാനേജറിനെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പെട്ടെന്ന് സെറ്റ് ആക്കി തരാം നിങ്ങൾക്ക് ജോയിൻറ്റ് അക്കൌണ്ട് ആണെങ്കിൽ നമ്മൾക്ക് ജോയിന്റ് അക്കൌണ്ട് എടുക്കാം നോർമൽ അക്കൌണ്ട് ആണെങ്കിൽ അങ്ങനെയും എടുക്കാം മാഡം മാഡം വന്നിട്ട് എന്നെ കണ്ടാൽ മതി അപ്പോൾ ഞാൻ ഇവിടെ ഓഫീസിൽ തന്നെ ഉണ്ടാവും അപ്പോൾ മാഡം വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ശരി ആക്കി തരാം ആ അക്കൌണ്ട് എടുക്കുമ്പോൾ തന്നെ ഡെപ്പോസിറ്റ് ഇടണം മാഡം സീറോ ബാലൻസ് ആയിട്ട് നമ്മൾ അക്കൌണ്ട് ഇതാക്കി കൊടുക്കുന്നില്ല ആ അപ്പോൾ മൺഡേ വരുവാണെങ്കിൽ നമ്മൾക്ക് സെറ്റ് ആക്കാം മ് എന്നാൽ ശരി